ഇപ്പോൾ ശൈത്യകാലംന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നല്ലൊരു വെയിലുള്ളൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ശൈത്യകാലംന്ന് പറഞ്ഞ്കഴിഞ്ഞാല് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെടി വളർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം ചെടീന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചൊന്നും കൊടുത്തില്ലെങ്കില് നമ്മക്ക് ചെടി പെട്ടന്ന് വാടി പോകാനും കരിഞ്ഞു പോകാനുമൊക്കെ സാധ്യത കൂടുതലുള്ള ഒരു സമയാണ് ഈ ശൈത്യകാലംന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മള് ചെടികളെ നല്ല രീതിയില് പരിപാലിച്ച് കൊണ്ടുവന്നാ മാത്രമേ നമക്ക് നല്ല രീതിയിലിള്ളോര് ചെടിയും പൂക്കളാണെങ്കിലും നമക്ക് പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും നല്ല രീതിയില്ണ്ടാവാണെങ്കിൽ അയിന് നല്ല രീതിയിലുള്ള വളവും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മള് കറക്ടായിട്ട് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം നമ്മള് ഒഴിച്ചാ എന്തായാലും എന്തായാലും രണ്ട് നേരവും നമ്മള് വെള്ളം കറക്ടായിട്ട് കൊടുക്കണം ഇപ്പം വളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തൊക്കെ നമക്കിട്ട് കൊടുക്കാ അപ്പൊ അങ്ങനെ നമ്മള് ഒരു പ്ലാനോട് കൂടി വേണം നമ്മള് ചെടിയെ പരിപാലിക്കാനൊക്കെ നോക്കേണ്ടത് അല്ലെങ്കില് നമുക്ക് ചെടി ചിലപ്പം നാശമായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്